ബെഡ് കിടക്കയെ കുറിച്ചാണ് പറയുക എന്താ പറയുക വളരെ നല്ല കിടക്ക കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വർക്ക് ചെയ്ത് വന്ന് സ്ട്രെസ്സ് ചെയ്തിട്ട് നമ്മൾ ആ കിടക്കയിൽ കിടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഫീലും വേഗം കിടന്ന് ഉറങ്ങുകയും ചെയ്യും വളരെ സോഫ്റ്റ് ആണ് നമുക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടവും തോന്നും ട്ടോ അമ്മേൻ്റെ മടിയിൽ ഒക്കെ കിടക്കുന്ന ഒരു ഫീൽ വളരെ സന്തോഷാണ് എത്ര ജോലി ചെയ്താലും നമ്മൾ വീട്ടിൽ എത്തുമ്പോൾ വളരെ സന്തോഷത്തോടെ ഭയങ്കര കാം ആയിട്ട് ആ കിടക്കയിൽ കിടക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യും നന്നായിട്ട് ഉറങ്ങാനും പറ്റും